ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രധാനമായും ഞങ്ങൾ ആശ്രയിക്കുന്നത് കിണറ് വെള്ളത്തേയാണ് എന്നാലും അത് കൂടാതെ മുൻസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൺ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പുഴയുണ്ട് കുളങ്ങളുണ്ട് പിന്നെ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാലുകളുണ്ട് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ വെള്ളം ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാണ് പക്ഷേ ഇതിൽ കനാൽ വഴിയുള്ള ജലസേചനം വർഷം മുഴുവനില്ല വർഷത്തിൽ ആറ് മാസം മാത്രമേ ഉണ്ടാവുകയുള്ളു കിണറും വലിയ വേനൽക്കാലം വരുമ്പോൾ കൂട്തലും വറ്റുന്നതാണ് പക്ഷെ എന്നാലും ഇറിഗേഷൻ്റെ ആ വേനൽക്കാലത്ത് ജലസേചനപദ്ധതിയുടെ ഭാഗം ആയിട്ട് കനാലുകളിൽ കൂടെ വെള്ളം വരികയും അത് കൃഷികൾക്ക് ആവശ്യമായി നനക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി കിണറുകളിലേക്ക് ഉറവ വരുന്നത് കാരണം മിക്ക കിണറുകളിലും അങ്ങനെ വെള്ളത്തിന് ക്ഷാമം വരാറില്ല ഈ ജലസേചന കനാൽ വഴിയുള്ള വെള്ളം വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ ഗുണകരമാണ് പിന്നെ പുഴയുണ്ട് പുഴയിൽ വെള്ളം വേനൽക്കാലത്തും ഉണ്ടാവും ഉണ്ടാവാറുണ്ട് അതുവഴി അവിടെ നിന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ കൾ വസ്ത്രങ്ങൾ കഴുകാനും കുളിയ്ക്കാനും ഒക്കെ ഞങ്ങൾ അത് ഉപയോഗിക്കുന്നൂണ്ട് പിന്നെ കൂട്തലും കനാൽ വഴിയുള്ള വെള്ളം ആ കനാലിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ കഴ്കാനും കുളിയ്ക്കാനും ഒക്കെ ഞങ്ങൾ വെള്ളമെടുക്കാറുണ്ട് ഉപയോഗിക്കുന്നുണ്ട് വർഷം മുഴുവൻ ഇല്ലെങ്കിലും മഴക്കാലത്ത് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട് എല്ലാവർക്കും കിണറുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ശുദ്ധമായി വെള്ളം ഉണ്ടാവാറൂണ്ട് വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ഇത് വളരെ സഹായകമാണ്